ഹലോ ഹലോ ആ ആ പറയ് ജിൻസി ഏത് സിനിമ ആണ് ജിൻസി ഇപ്പോൾ നല്ല നല്ല ട്രെൻഡിങ്ങ് ആയിട്ടുള്ളത് ഹലോ ആ ജിൻസി കേൾക്കാമോ ആ നമുക്ക് ബാഹുബലിക്ക് ബാഹുബലി അല്ലേ കഴിഞ്ഞ തവണ നമ്മൾ കാണാൻ പോയത് നമുക്ക് ആട് ത്രീ കാണാൻ വേണ്ടി പോയാലോ പിന്നെ പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ നെറ്റ് ഇപ്പോൾ നമ്മൾ ആട് ത്രീ ഇറങ്ങി എന്ന് വിചാരിച്ചാൽ കൂടി രണ്ടുദിവസം കഴിയുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വരില്ലേ അപ്പം അതല്ലേ കുറച്ചും കൂടെ നല്ലത് അതാവുമ്പോൾ നമുക്ക് പേർ പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് കാണാമല്ലോ തീയറ്ററിൽ പോയി എല്ലാവരും കൂടി ഇരുന്ന് കാണുന്നതിനും നല്ലത് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ കാണുന്നതല്ലേ ഇപ്പോൾ ഒന്നാമത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ ഈ ആട് ത്രീ പോയി തീയറ്ററിൽ കാണുവാണെങ്കിൽ ഭയങ്കര കൂവലും ബഹളം ഒക്കെ ആയിരിക്കും നമുക്കൊന്ന് സിനിമ ഒന്ന് എഞ്ചോയ് ചെയ്യാൻ പോലും പറ്റില്ല ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണുവേം ചെയ്യാം അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ നല്ലത് ആ ആ ഞാൻ ആലോചിക്കാം എന്തായാലും എനിക്കൊന്ന് ആ ഞാൻ നോക്കട്ടെ ഞാൻ ഫ്രീ ആണെങ്കിൽ അപ്പം ഞാൻ വരാം എന്നാൽ ഞാൻ ഫ്രീ ആണ് ഫ്രീ ആവുവാണെങ്കിൽ ഞാൻ വരാം ഞാൻ എന്തായാലും താൽപ്പര്യക്കുറവല്ല ജിൻസീ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ തീയറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് ഭയങ്കര കൂവലും ബഹളവും ഒക്കെ ആയിരിക്കും നമുക്കാ നമുക്ക് അതങ്ങ് എഞ്ചോയ് ചെയ്യാണ്ട് അങ്ങ് ആ മൂഡ് അങ്ങ് പോവും ആ വൈബ് അങ്ങ് പോവും പിന്നെ എങ്ങനെ കാണുക ആ ഞാൻ എന്തായാലും വീട്ടിലും കൂടെ ചോദിച്ചിട്ട് ഞാൻ ജിൻസിയോട് പറയാം ജിൻസി എന്തായാലും ഞാൻ നല്ല സിനിമ ആണോ അല്ലേ നല്ല സിനിമ അല്ലേ ആ ആ എത്ര മണിക്കുള്ള ഷോ ആണ് ജിൻസീ ആ ആറ് മണിക്ക് അപ്പോൾ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ആ അത് നല്ല പക്ഷേ ആറ് മണിക്കുള്ള ഷോ എന്നല്ല എനിക്ക് അതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒൻപതരയുടെ ഷോവിന് പോയാലോ അതാവുമ്പം നൈറ്റ് നമുക്ക് പോയിട്ട് തിരിച്ച് വരാമല്ലോ അല്ലേ നമുക്ക് ഇങ്ങനെ നമുക്ക് അത് നോക്കാം എന്തായാലും ഞാൻ ഇപ്പോൾ വീട്ടിൽ ഞാൻ പെർമിഷൻ ചോദിക്കട്ടെ വീട്ടിൽ പോവാൻ സമ്മതിക്കുവാണെങ്കിൽ ജിൻസിയോട് ഞാൻ പറഞ്ഞേക്കാം പിന്നെ നമുക്ക് ആ പിന്നെ വീട്ടിൽ സമ്മതിക്കണമെന്നില്ല ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ പറയും എന്തായാലും നീ അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഇരുന്ന് കാണ് എന്തിനാണ് തീയറ്ററിൽ പോവുന്നത് എന്നൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് പേരും മാത്രമാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ അ എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാം ജിൻസി